നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സാധനങ്ങൾ അതായത് സാമഗ്രികൾ വാങ്ങണം അത് വാങ്ങിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒരു പെൻസിൽ വാങ്ങുകയാണെങ്കിൽ ആ പെൻസിൽ പലതരം പെൻസിലുകൾ ഉണ്ട് ടു ബി എ ബി അങ്ങനെ പലതരം പെൻസിലുകളുണ്ട് ഡാർക്ക് ഷേഡ് കൊടുക്കാനും പിന്നെ ഔട്ടർ ലൈൻ വരയ്ക്കാനും ബോർഡർ കൊടുക്കാനും പല തരം പെൻസിലുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു കണ്ണ് വരയ്ക്കുകയാണെങ്കിൽ ആ കണ്ണിന് എന്താണ് പറയുക ഒരു പെർഫെക്ഷൻ കൊടുക്കണമെങ്കിൽ പല തരം സാമഗ്രികൾ ഉപയോഗിച്ചിട്ട് വേണം ആ കണ്ണിന് പെർഫെക്ഷൻ കൊടുക്കാൻ അപ്പം നമ്മൾ ഓരോ ബ്രാൻഡുകൾ വാങ്ങുവാണെങ്കിലും എന്താണ് പറയുക അതിനുള്ളൊരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും ഇപ്പം അത്യാവശ്യം വിലക്കൂടുതലാണ് ഈ സാമഗ്രികൾക്ക് ഒക്കെ പക്ഷേ വിലക്കൂടുതൽ ആണെങ്കിലും എങ്ങനെയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഇപ്പം ആർക്കെങ്കിലും നമ്മൾ വരച്ചു കൊടുക്കുകയാണ് നമ്മൾ ക്യാഷിന് വേണ്ടി വരച്ച് കൊടുക്കുവാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ നല്ലൊരു സാമഗ്രികൾ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതൊരു നല്ലൊരു പെർഫെക്ഷൻ ആയിട്ട് വരച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു തൃപ്തിയാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പം വേറെ ആൾക്കാ ആൾക്കാരോട് പറഞ്ഞ് അവർ അറിഞ്ഞ് അങ്ങനെ നമുക്കതൊരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ വേണമെങ്കിൽ കൊണ്ടുനടക്കാം അപ്പം നല്ലൊരു സാമഗ്രികളൊക്കെ വാങ്ങി യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല മികച്ച ഒരു തീരുമാനായിരിക്കും ഇതിനെല്ലാം